പത്ത് അഞ്ച് രണ്ടായിരം നാല് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എഴ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആറ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ്